ആ എന്നത്തേയ്ക്കാണ് നിങ്ങൾ കല്ല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നത് ഏ ഓക്കേ എത്ര എത്രാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചിട്ടുണ്ട് ആ അപ്പം നമ്മൾ ഈ കല്ല്യാണത്തിന് മുമ്പേ ഈ മാര്യേജ് കോഴ്സ് ഒരു മൂന്ന് ദിവസത്തെ കോഴ്സ് എന്തായാലും അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന അവിടുന്ന് അത് പള്ളിയിൽ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എൻഗേജ്മെൻറ്റ് മനസ്സമ്മതം പള്ളിയിൽ വച്ച് നടത്താൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പം സെപ്റ്റംബർ മാസം ആകുമ്പം അടുത്ത മാസം ആവും അല്ലേ വരുന്നത് അപ്പം ഈ മാസം അവസാനം ആ അപ്പം ഈ മാസം അവസാനത്തെ ആഴ്ച്ച ഒരു ക്ലാസ് ഉണ്ട് ഒരു മൂന്ന് ദിവസത്തെ അപ്പം അത് അറ്റൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ കുറി തരണമല്ലോ കുറി തരണമെങ്കിൽ നിർ അറ്റൻഡ് ചെയ്യണം ആ പിന്നെ കുടിശ്ശിക എന്തെങ്കിലും പള്ളിയിൽ തരാൻ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആയിരിക്കണം മറ്റേ മനസ്സമ്മതത്തിന് മുമ്പ് ആ എന്നാൽ പിന്നെ കുഴപ്പം ഇല്ല നമുക്ക് അപ്പം സെറ്റിൽ ചെയ്യാം അപ്പം ഇത് എന്തായാലും നിർബന്ധം ആണ് പിന്നെ നമസ്ക്കാരം ഒക്കെ പഠിച്ചിരിക്കണം പ്ലസ് ടു വരെ പഠിച്ച മോൾ ആയതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നും ഉണ്ടായിരിക്കില്ല ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ക്ലാസ്സിന് എന്തായാലും വിട് ക്ലാസ്സിന് വിട്ടിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മനസ്സമ്മതം നടത്തി കഴിഞ്ഞ് കുറി തരണം ചെക്കന്റെ അവിടേക്ക് കുറി തരണമെങ്കിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധം ആണ് അപ്പം പിന്നെ അങ്ങനെ ചെയ്യാം കെട്ട് എന്നത്തേക്കാണ് വയ്ക്കുന്നത് കെട്ട് എവിടെയാണ് എപ്പോഴത്തേക്കാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കെട്ട് ചെക്കൻറെ അവിടെ ആണല്ലോ ആ ഓക്കെ ഓ ആ അത് കഴിയണം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് കഴിഞ്ഞ് മതി ഏയ് ഇല്ല ഇല്ല ഇല്ല നമ്മൾ ഇപ്പം നിങ്ങൾ ഒത്ത് കല്ല്യാണത്തിന് മോതിരം ഇടാൻ തീരുമാനിക്കുന്നില്ലല്ലോ മോതിരം ഇടുന്നുണ്ടോ മോതിരം പേര് എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറുന്നുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഓക്കേ എന്നാൽ പിന്നെ അത് മാത്രം കൊണ്ടുവന്നാൽ മതി ഈ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നാൽ വേറെ ഒന്നും കൊണ്ട് വരേണ്ട ആവശ്യം ഇല്ല മനസമാധാനത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കെട്ടിൻറെ അവിടേക്ക് പോവുമ്പം ആണ് നമ്മൾ കുറി എഴുതിത്തരും പള്ളിയിൽ നിന്ന് അത് കൊണ്ടു പോയിട്ട് ചെക്കൻറെ പള്ളിയിൽ കൊടുത്താൽ മതി വേറെ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾ കുടിശ്ശിക ഒക്കെ കൊടുത്ത് തീർത്തു എന്നല്ലേ പറഞ്ഞത് അപ്പം വലിയ ഇതില്ല